പണ്ട് ക്ലാസ്സിലോക്കെ ഇരിക്കുമ്പോൾ ചുമ്മാതെ വരച്ച് ചുമ്മാതെ ക്ലാസ്സിലിരുന്നു ബോർ അടിക്കുമ്പോ സാറുമ്മാര് വരുംന്ന് പറഞ്ഞു ഇങ്ങനെ ബോർ അടിക്കുമ്പോൾ ചുമ്മാതെ പേനവെച്ച് വരച്ച് ഇങ്ങനെ വന്നതാണ് വന്ന് വന്ന് വന്ന് എന്താ വരക്കുന്നത് എന്നൊന്നും അറിയില്ല സാറുമ്മാര് ശ്രദ്ധിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് സാറുമ്മാര് കാണുമ്പോൾ പഠിക്കുക എന്ന് തോന്നണം എന്നാ നമുക്ക് നമ്മുടെ ബോറടിയും മാറ്റണം അങ്ങനെ ചുമ്മാതെ ഓരോന്ന് വരച്ച് വരച്ച് തുടങ്ങിതാണ് അങ്ങനെ വരച്ച് കണ്ട കടലും പുഴയും മരവും കല്ലും വീടും അങ്ങനെ ഒക്കെ ഓരോന്ന് വരച്ച് വരച്ച് അവസാനം ഒരു ഒരു ബുക്കിന്റെ ഹാഫ് വരെയായി ചുമ്മാ എന്നുംതന്നെ ഇരുന്നു ഈ വരക്കല് വരക്കും ഇപ്പൊൾ എന്താ വരക്കുന്നത് എന്നൊന്നും അറിയില്ല എന്നും വരക്കുന്ന സാധനം തന്നെയാണ് വീടും കല്ലും മഴയും അങ്ങിനെയുള്ള കുഞ്ഞുകുഞ്ഞു പ്രകൃതി പ്രകൃതി മാത്രേ വരക്കാൻ അറിയുള്ളൂ വേറൊന്നും വരക്കാൻ അറിയില്ല പിന്നെ അങ്ങനെ വരച്ച് വരച്ച് വരച്ച് വന്നു വന്നു എന്റെ വരക്കുന്നൊരു കഴിവ് കൂടിവന്നു പിന്നെ എനിക്ക് മനസിലായി വരക്കാനുള്ളോരു കഴിവുണ്ടെന്ന് ബോറടി മാറ്റാൻ വേണ്ടിട്ടാണ് വരക്കാൻ തുടങ്ങിയത് എങ്കിൽപ്പോലും ഇന്നും ഈ ബോറടി മാറ്റാൻ വേണ്ടി വരച്ച് വരച്ച് വരച്ച് എനിക്കെന്റെ കഴിവിനെ ഞാൻപോലും അറിയാണ്ട് വളർത്തിയെടുക്കാൻ സാധിച്ചുന്നുള്ളതാണ് ഒരു സത്യം എനിക്കറിയില്ലായിരുന്നു അത്രയും നാള് എനിക്ക് വരക്കാൻ അറിയുംന്ന് എന്നൊന്നും അപ്പൊൾ ഞാനങ്ങനെ ഒരു ചുമ്മാതെ ബോറടി മാറ്റാൻ വേണ്ടി വരച്ചതാണെങ്കിൽപ്പോലും കാലത്തിന് ശേഷം അതെനിക്ക് എന്റെ ലൈഫില് എനിക്കൊരു എന്റെ ഒരു ടാലെന്റ് കണ്ടെത്താൻ ആ വഴി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്